വ്യക്തി ശുചിത്വം എന്ന് പറയുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പരിസരത്തിൻ്റെ ശുചീകരണവും എന്ന് പറയുന്നത് എന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഒരു വ്യക്തി എത്രമാത്രം സ്വന്തം ശുചിത്വത്തില് നിഷ്ക്രിയ കാണിക്കുന്നുവോ അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യത്തോടെ അതിനെ നോക്കി കാണുന്നുവോ അങ്ങനെ തന്നെയായിരിക്കണം നമ്മുടെ പരിസരവും സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ ഒരു വ്യക്തി അവൻ്റെ ഒരു വ്യക്തി ശുചിത്വം സൂക്ഷിച്ചത് കൊണ്ട് മാ സൂക്ഷിച്ചത് കൊണ്ട് മാത്രം ആ വ്യക്തി ശുചിത്വമുള്ളവനായി അല്ലെങ്കില് അവൻ സേഫ് സുരക്ഷിതനാണ് എന്ന് കരുതാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു വ്യക്തിയെ സുരക്ഷിതനായി നിർത്തുന്നത് അല്ലെങ്കില് അവൻ്റെ അവൻ്റെ ശുചിത്വം പൂർണ്ണമാകണമെങ്കില് അതിൻ്റെ പരിസരം വൃത്തിയായിരിക്കണം ഇപ്പം വീട്ടിലാണെങ്കില് ഇപ്പോൾ ഒരു കുടുംബത്തില് ഒരു അഞ്ച് പേര് ആറു പേര് ഉണ്ടെയെങ്കില് ആ വ്യക്തികൾ ഓരോരുത്തരും അവരവരുടെ ശുചിത്വം പാലിക്കുന്നതിലേക്കായി അവര് അവരുടെ വീട്ടില് വരുന്ന വേസ്റ്റ് സാധനങ്ങള് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വേസ്റ്റ് സാധനങ്ങള് ഇതൊക്കെ കൊണ്ട് പുറത്തേക്ക് നമ്മുടെ പരിസരത്തേക്ക് വലിച്ചെറിയുന്ന ഒരു രീതിയാണ് ഉള്ളത് എങ്കില് അത് ഒരിക്കലും നമുക്ക് സമൂഹത്തില് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതല്ല അവിടെ വ്യക്തി ശുചിത്വമുണ്ട് എന്ന് നമുക്ക് പറയാനും സാധിക്കുകയില്ല ശുചിത്വം എന്ന് പറയുമ്പോഴ് ഒരു വ്യക്തിയുടെ ശുചിത്വവും അതുപോലെ തന്നെ പരിസര ശുചിത്വവും ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തില് പ്ലാസ്റ്റിക്ക് പോലെയുള്ള മാലിന്യങ്ങള് നമ്മുടെ സമൂഹത്തില് നമ്മുടെ പരിസരത്ത് തീർച്ചയായിട്ടും മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നു പറയുന്നത് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അതിനെ വേർതിരിച്ച് ഇപ്പം നമുക്ക് വെജിറ്റബിൾസ് അല്ലെങ്കില് പച്ചക്കറികള് അതുപോലെയുള്ള സാധനങ്ങളുടെ സാധനങ്ങളൊക്കെ നമ്മള് വൃത്തിയാക്കുമ്പോൾ വരുന്ന വേസ്റ്റാണെങ്കില് അതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കി അത് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് പിന്നീടത് വളമായിട്ടോ അതുപോലെയുള്ള ജൈവവളമായിട്ട് മാറിക്കിട്ടുകയും അത് നമ്മുടെ കൃഷിയെ നമ്മളെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങളാണ് നമ്മുടെ വീടുകളിലുണ്ടാകുന്നത് എങ്കില് അതിനെ നമ്മള് തരം തിരിച്ച് വെക്കുക അതുപോലെ തന്നെ തരം തിരിച്ച് വെച്ച് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അതിനെ നശിപ്പിച്ച് കളയുക എന്നതിലുപരിയായിട്ട് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പരിസരത്തിടാനെ സാധിക്കുകയുള്ളൂ ആ പരിസരത്തിൽ ഇടുന്നതിന് പകരം അത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് അതിന് സർക്കാര് തലത്തിലെർപ്പെടുത്തിയിരിക്കുന്ന സമതികളെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നെ അപ്പോൾ അവരെ ഏൽപ്പിക്കുകയോ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പം അയൽ വീടുകള് നമുക്ക് ധാരാളം ഉണ്ട് അയൽക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയില് വേണം നമ്മള് ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങള് സംസ്കരിക്കേണ്ടത് എന്നു പറയുമ്പം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മളടുത്ത വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മുടെ വീട് ശുചിയാക്കുക എന്ന് പറയുമ്പോഴ് അവിടെ ഒരിക്കലും ശുചിത്വം എന്ന പ്രക്രിയ പൂർണ്ണമാകുന്നില്ല മറിച്ച് ശുചിത്വം എന്ന വാക്ക് അല്ലെങ്കിൽ ആ പ്രക്രിയ പൂർണ്ണമാകണമെങ്കില് നമ്മുടെ സമൂഹത്തില് അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളിലുള്ള വീടുകളിലും ഇതേപോലെ തന്നെ ശുചിത്വം പാലിച്ചിരിക്കണം അതിന് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അറിവില്ലാത്തവരാണ് എങ്കില് നമുക്കവരെക്കുറിച്ച് അവര് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കുകയോ അതിന് വേണ്ട സഹായങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുകയോ ഒക്കെ നമുക്ക് ആകാവുന്നതാണ് പിന്നെ പറയുമ്പോഴ് മണ്ണിൽ ദ്രവിക്കുന്ന ദ്രവിക്കാത്ത വസ്തുക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ എക്സാമ്പിള് പറഞ്ഞാല് ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ നമ്മള് പറഞ്ഞത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഈ അടുത്ത കാലത്തായിട്ട് വളരെയെറെ കൂടിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങളില് നമ്മള് സാധനങ്ങള് വാങ്ങിക്കുന്നു അല്ലെങ്കില് ഈ ഈ കുടിവെള്ളം പോലും നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികളില് ലഭ്യമാണ് ഇന്ന് ആ പ്ലാസ്റ്റിക് കുപ്പികളില് നമ്മള് വെള്ളം കുടിച്ചു ഉപയോഗം കഴിഞ്ഞു അത് നമ്മള് വലിച്ചെറിഞ്ഞ് സമൂഹത്തിന് അതൊരു ദോഷമായി ഭവിക്കുന്നതിലും അതിനൊരവസരം കൊടുക്കാതെ നമ്മുടെ വീടുകളിൽ തന്നെ കൊണ്ടു വന്ന് നമ്മള് ശേഖരിച്ച് അത് ഒരുമിച്ച് അതിപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ തന്നെ അതിൻ്റേതായ സൗകര്യം നമുക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അത് നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് അതല്ല എങ്കില് നമ്മുടെ വീടുകളിൽ തന്നെ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ട് പോവുന്ന ഹരിതകർമ്മ സേനയുണ്ട് അവരെ ഏൽപ്പിക്കുകയോ ചെയ്യാം പിന്നെ നമ്മളുടെ അലസം പിന്നെ അതുപോലെ തന്നെ വീട്ടിലിട്ട് സാധനം ഇങ്ങനെ വേസ്റ്റ് സാധനങ്ങള് കത്തിക്കുകയൊ ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ നിന്ന് ഉയരുന്ന പുക അതെപ്പോഴും നമുക്കറിയാം പുക എന്ന് പറയുന്നത് എത്ര ദോഷകരമല്ലാത്ത സാധനങ്ങൾ നമ്മൾ കത്തിച്ചാൽ പോലും അതത്രയും ദോഷം നമുക്ക് കിട്ടുന്നതാണെന്ന് നമുക്കറിയാം നമുക്ക് മാത്രമല്ല ഒരു ഒരിടത്ത് ഒരു ഒരു കരിയില പോലും കത്തിച്ചാല് അതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന കരിയും പുകയും അതൊരൊരു പ്രദേശത്തെ മുഴുവൻ അത് ബാധിക്കാം അപ്പോൾ എന്ന് പറയുമ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമ്മുടെ കൈകളിലാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും കൈകളിലാണ് നമ്മളതിനാണ് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിനായി ഇങ്ങനെ അല്ലാതെ നമ്മള് വലിച്ചെറിയുന്ന ഓരോ സംഭവങ്ങളും അല്ലെങ്കില് ഓരോ വേസ്റ്റ് സാധനങ്ങളും നമ്മുടെ സമൂഹത്തില് വരുത്തുന്ന ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ബോധവാന്മാരായിരിക്കണം അതിനനുസരിച്ച് വേണം നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുവാനും ഓരോന്നിനും ഓരോ സ്ഥലം വേസ്റ്റ് കളയാന് അല്ലെങ്കിൽ വേസ്റ്റ് നിക്ഷേപിക്കാന് അതിനെ നമ്മള് എങ്ങനെ നശിപ്പിച്ച് കളയുന്നു എന്നതിന് ഓരോരോ സ്ഥലം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ പരിസരം നമുക്ക് വൃത്തിയായും അതു വഴി നമ്മുടെ സമൂഹത്തെയും നമുക്ക് ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ സാധിക്കും